അച്ചടി മാധ്യമങ്ങളായ പത്ര മാസിക തുടങ്ങിയവയും വാർത്താ ചാനലുകൾ സോഷ്യൽ മീഡിയ തുടങ്ങിയ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വളരെ എനിക്ക് ദൃശ്യമാധ്യമങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് ആ എന്തെന്ന് പറഞ്ഞാൽ ദൃശ്യ മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾക്ക് ആ ടീ വിയിലൂടെ എല്ലാം കാണാനും അറിയാനും മനസിലാക്കാനും പറ്റും അതുകൊണ്ടാണ് ദൃശ്യ മാധ്യമം മാ മ ദൃശ്യമാർഗങ്ങൾ മാധ്യമങ്ങൾ മനസിലാക്കാൻ ഇഷ്ടപ്പെടുന്നത് വർത്തകളിലൂടെയും ചാനലുകളുടെയും നമുക്ക് അത് പേപ്പറിൽ കാണാനേ പറ്റത്തുള്ളു അത് വായിച്ച് മനസിലാക്കാനേ പറ്റത്തുള്ളു സ്യം ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ നമുക്ക് ആ ചാനലിലൂടെ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുകയും അത് ക് കേൾക്കാനും മനസിലാക്കാനും വെ ചിന്തിക്കുവാനും നമ്മൾക്ക് അത് പറ്റും